രാസ പദാർത്ഥങ്ങൾ ഉള്ള കീടനാശിനികളുടെ ഉപയോഗം ഇന്ന് വളരെയേറെ കൂടുതലാണ് പണ്ടുള്ള പണ്ടുള്ള കാലങ്ങളില് നമ്മള് കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പണ്ടുള്ള ജനങ്ങള് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് വെറുതെ ഒന്നും ഒരു വളങ്ങളുപയോഗിക്കാതെ നമ്മള് കൊണ്ട് കുഴി പിന്ന ഒരു ചെടി അല്ലെങ്കിൽ ഒരു തക്കാളിയോ ഒരു പിന്നെ പച്ചക്കറിയെന്തേലും കൊണ്ട് കുഴിച്ച് വെച്ചാല് കൊണ്ട് കുഴിച്ച് വെച്ചാല് മാത്രം മതിയായിരുന്നു ഒരു വളങ്ങളുപയോഗിക്കാതെ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഫലങ്ങള് കിട്ടും പക്ഷെ ഇന്നങ്ങനെ ഫലങ്ങള് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ രാസപദാർത്ഥങ്ങള് ഒത്തിരി അമിതമായിട്ടുപയോഗിക്കുന്നുണ്ട് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാതെ രാസ കീടനാശിനികൾ ഒത്തിരി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കൊത്തിരി ദൂഷ്യ വശങ്ങളുണ്ട് അത് മണ്ണിനെ ശരിക്കും നശിപ്പിക്കുന്നുണ്ട് ഒരു ഒരു തവണ നമ്മള് രാസപദാർഥങ്ങളുപയോഗിച്ച് കഴിഞ്ഞാല് വീണ്ടും അത് മണ്ണിൻ്റെ ഘടനയെ ശരിക്കുവത് മാറ്റുകയും വീണ്ടും അവിടെ അത് ഉപയോഗിക്കാതെ വീണ്ടും നമുക്കത് കൃഷി ചെയ്യാൻ സാധിക്കാത്ത രീതിയിലോട്ടായി വരികയാണ് ആ പണ്ട് നമ്മള് എന്ത് ടേസ്റ്റിനാണെലും ഒരു കാന്താരി മുളകിനാണേലും പണ്ട് നല്ല ടേസ്റ്റാണ് കാന്താരി മുളകരച്ചാൽ പോലും നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി നമുക്കത് കൂട്ടി ചോറുണ്ണാൻ പറ്റുന്നൊരു രീതിയായിരുന്നു പണ്ട് പക്ഷെ ഇന്ന് എന്ത് പച്ചക്കറി എന്ത് പച്ചക്കറിയാണേലും നമുക്ക് ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ലഭ്യമാകുന്നില്ല പ്രത്യേകിച്ച് നമ്മള് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചക്കറികളൊക്കെ എത്ര ദിവസം വീട്ടിൽ വെച്ചാലും ഫ്രിഡ്ജില്ലാതെ വെറുതെ നമ്മള് തുറസായ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചായാലും നമുക്കത് കേടുകൂടാതെ നമുക്ക് പെട്ടന്നൊന്നും ചീഞ്ഞു പോകാതെ ഇരിക്കുന്നു ദിവസങ്ങളോളം അത് യാതൊരു ഭാവവ്യത്യാസമോ ഇല്ലാതെ നമ്മുടെ അത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ നമ്മുടെ അടുക്കളയിൽ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷെ നമ്മള് യാതൊരു വിഷവും ചേർക്കാതെ നമ്മുടെ മിറ്റത്ത് ഉണ്ടാക്കുന്ന ഒരു തക്കാളിയാവട്ടെ അല്ലെങ്കിൽ ഒരു മത്തങ്ങയാവട്ടെ എന്തായാലും നമ്മുടെ അടുക്കളയിൽ കൊണ്ട് വന്നാൽ അതിനൊരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പത്തേക്കും അതിനൊരു ഭാവവ്യത്യാസം വന്ന് തുടങ്ങും അതുപോലെ കീടനാശിനികളാണ് നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാത്തിനും അതുപോലെ കീടനാശിനികളുപയോഗിച്ചാണ് വരുന്നത് അതുകൊണ്ട് അത് എത്ര ദിവസം കഴിഞ്ഞാലും കേട് കൂടാതെ ഇരിക്കുന്നു ഇന്നത്തെ കാലത്ത് പിന്നെ അതിൻ്റെ രുചി വ്യത്യാസം എന്ന് പറഞ്ഞാല് ശരിക്കും അതിന് ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ സ്വന്തമായിായിട്ടുൽപാദിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വന്തവായിട്ട് അൽപ്പം ചാരവും ചാണകവും മാത്രമിട്ട് നമ്മൾ ഉല്പാദിപ്പിക്കുന്ന നമ്മുടെ ബീൻസ് പയറ് അതുപോലെ തക്കാളി വെണ്ടയ്ക്ക ഇങ്ങനെയുള്ള പച്ചക്കറികൾക്ക് നല്ല ടേസ്റ്റിലോടൂടി നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കും പക്ഷെ നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒത്തിരി കീടനാശിനികള് തളിച്ച് നമുക്ക് ലഭ്യമാകുന്ന ഈ പച്ചക്കറികള് നമ്മള് ഉപയോഗിക്ക ഉപയോഗിക്കാൻ തന്നെ നമ്മള് ഉപ്പ് വെള്ളത്തില് ചെറിയ ചൂട് വെള്ളത്തില് ഇട്ട് ഉപ്പ് ഒഴിച്ച് ചെറിയ ചൂട് വെള്ളത്തിലിട്ട് അതിനു ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മള് ആ വെള്ളത്തിലിട്ട് കഴുകി മൂന്നും നാലും അഞ്ചും തവണ കഴുകി ഒക്കെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അതുപയോഗിച്ച് കഴിഞ്ഞാലും യാതൊരു ടെസ്റ്റും ഇല്ല നമ്മളതിനോട് ചേർക്കുന്ന തേങ്ങായുടെയും അല്ലങ്കില് സവോളയുടേയും ടേസ്റ്റ് ടേസ്റ്റാണ് കൂടുതലും അതുകൊണ്ടാണ് നമ്മള് അത് അത് ഭക്ഷിക്കുന്നത് തന്നെ പക്ഷെ നമ്മള് സ്വന്തവായിട്ടുണ്ടാക്കുന്ന പച്ചക്കറികൾക്ക് നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് നമ്മള് മിറ്റത്തെടുക്കളത്തോട്ടം അല്ലങ്കില് ടെറസ്സില് അടുക്കളത്തോട്ടം അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് തലത്തിലും അതുപോലെ സംഘടന തലത്തിലുവൊക്കെ നമ്മള് ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കാരണം അതാണ് നമ്മള് ഒത്തിരി വിഷാംശങ്ങളുള്ള സാധനങ്ങള് നമ്മള് കഴിക്കുന്നുണ്ട് നമുക്ക് ടേസ്റ്റും ഉണ്ടാവുകയില്ല നമ്മുടെ ആരോഗ്യവും അത്രയേറെ നമ്മള് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കപ്പെടുന്നു അതുപോലെ നമ്മുടെ രാസപദാർത്ഥങ്ങളുപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മണ്ണിലാണേലും ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാകുന്നുണ്ട് രാസപദാർത്ഥങ്ങളുപയോഗിച്ച് നമ്മള് ഇപ്പം എന്ത് നട്ടാലും നമ്മുടെ മണ്ണിലെന്ത് നട്ടാലും നമുക്ക് അതിന് അനുയോജ്യമായൊരു നമ്മള് പ്രതീക്ഷിക്കുന്നൊരു ഫലം നമുക്ക് കിട്ടുന്നില്ല പെട്ടന്ന് തന്നെ അത് പുഴുക്കുത്തേക്കുക അല്ലങ്കില് അതിൻ്റെ തണ്ട് ഇലകളൊക്കെ മുരടിച്ച് പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ മണ്ണിന് വന്നുകൊണ്ടിരിക്കുന്നത് അത് അമിതമായ ഈ രാസപദാത്ഥങ്ങളുടെ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടാണ് അതുപോലെ തന്നെ ഒരു പുല്ല് കളയാനാണങ്കിലും ഇപ്പോഴുള്ള ജനങ്ങള് കീടനാശിനി ഉപയോഗിച്ചാണ് പുല്ല് കളയുന്നത് പണ്ടുള്ളവര് അരുവ ഉപയോഗിച്ച് അത് വീശി വീശി കളഞ്ഞിരുന്നു അല്ലങ്കിൽ കൈകൾ കൊണ്ട് പറിച്ച് കളഞ്ഞിരുന്നു പക്ഷേ ഇന്ന് അത് എല്ലാവർക്കും കളനാശിനി ഉപയോഗിച്ച് ഒരു മരുന്നടി അടി ഒരു ഒരു തവണ മരുന്നടിച്ച് കഴിഞ്ഞാല് മൂന്ന് നാലും മാസത്തേക്കവിടെ പിന്നെ പള്ളകളൊന്നും കിളുക്കുകയില്ല അത്രയും അതുകൊണ്ട് അത് എളുപ്പമാർഗ്ഗമായി കണ്ടുകൊണ്ട് എല്ലാവരും അത് തന്നെയാണുപയോഗിക്കുന്നത് ഇങ്ങനെ കളനാശിനിയാണുപയോഗിക്കുന്നത് അത് അത് വന്ന് നമ്മുടെ അത് മണ്ണിനോട് ചേർന്ന് ആ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് അത് നമ്മൾ കുടിക്കുന്ന ജലത്തിലും എല്ലാം അത് ആവുവാണ് കുടിക്കുന്ന ജലത്തിൽ കൂടിയായി നമുക്ക് പലവിധ രോഗങ്ങൾ വരുന്നു ആ ഒത്തിരി നമ്മള് പ്രതീക്ഷിക്കാതെ ഒത്തിരി ഒത്തിരി രോഗങ്ങള് നമ്മള് പ്രതീക്ഷിക്കാതെ നമ്മുടെ ശരീരത്തേക്ക് കയറുന്നുണ്ട് അതെല്ലാം നമ്മുടെ ഈ കീടനാശിനികളുടെ അമിതമായ ഉപയോഗം കൊണ്ടാണ് നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നായാലും കുടിക്കുന്ന വെള്ളത്തിൽ നിന്നായാലും നമ്മള് ധാരാളം വിഷാംശങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് കൊച്ചുകുട്ടികൾ മുതൽ ഓരോരോ അസുഖങ്ങൾക്കും മാരകമായ അസുഖങ്ങൾക്കും മറ്റും കാരണമാകുന്നതിന് കാരണവും നമ്മുടെ ഈ അമിതമായ രാസവസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന പക്ഷി ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ടാണ് ശരിക്കും ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കളാണ് കേരളത്തിലുള്ള ജനതകള് ഭക്ഷിക്കുന്നത് മുഴുവനും